ഞാനൊരു ഇങ്ങനെയൊരു വെഡിംഗ് ഗൗണ് തയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് അതിനകത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാന് പറയാന് ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയല് അല്ലായിരുന്നു അപ്പം അതിൻ്റെ അകത്തുനിന്ന് വന്ന എനിക്കൊരു നമ്മൾ ഉദേശിച്ച ഈയൊരു പാറ്റേണിൽ എനിക്ക് എത്തിച്ചേരാന് സാധിച്ചില്ല പക്ഷെ ഞാൻ അത് എന്റെതായിട്ടുള്ള ഒരു സ്റ്റൈലില് എത്തിച്ചപ്പോൾ അത് അവര്ക്ക് കണ്ടിട്ട് വെഡിംഗ് ഗൗൺ ആവുമ്പത്തേക്കും അതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടികൾ ഉണ്ടാവും എന്നിരുന്നാലും അത് അത് വേണ്ടത്ര വേണ്ടപോലെ എനിക്ക് ആ മെറ്റീരിലെ കൊണ്ട് എനിക്ക് എത്തിക്കാന് സാധിച്ചില്ലായിരുന്നു അതിന് ശേഷം ഞാന് അത് കണ്ടെത്തി അതിന്റെ മെറ്റീരിയല് വേറെ മെറ്റീരിയല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ ഒരു രീതിയില് കൊണ്ടുവന്ന് ഞാൻ അതിനെ ഞാൻ നല്ല രീതിയില്ത്തന്നെ ഞാൻ അത് കൈകാര്യം ചെയ്തു ചെയ്തിരുന്നു അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിറിയ ഭാഗ്യം ഭാഗം എന്ന് പറഞ്ഞാൽ അതിനകത്തെ ആ ഗൗണിന് ആ മെറ്റീരിയിലനകത്തെ കല്ല് കല്ലും പേളിന്റെ മുത്തുകളും കൊണ്ടുവെച്ചിരുന്നതായിരുന്നു അപ്പം നമുക്ക് അപ്പം നമുക്ക് അത് നമുക്ക് നമ്മുടെ സൂചിയില് തയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് സൂചി ഇതിന്റെ ഇടയ്ക്ക് കയറുകയും അങ്ങനെ അതിൻ്റെ അകത്ത് അങ്ങനെ വന്നൊരു ബുദ്ധിമുട്ട് ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് നേരം അതിനെ കൈകാര്യം ചെയ്യാന് സാധിച്ചില്ല പക്ഷെ അത് എന്റെതായ എന്റെ രീതിയിൽ ഞാൻ അത് കൈത്തയ്യല് ചെയ്ത് കല്ല് വരുന്ന ഭാഗം അവോയ്ഡ് ചെയ്ത് ഞാൻ അത് വേണ്ട രീതിയിൽ എന്റെതായിട്ടുള്ള ഒരു രീതിയിൽ അത് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ അത് നല്ല രീതിയില്ത്തന്നെ അത് പ്രെസന്റ് ചെയ്തു അത് അവര്ക്ക് വളരെ ഇഷ്ടമാവുകയും ചെയ്തിരുന്നു വെല്ലുവിളി എന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ അറ്റത്ത് മെയിന് വെല്ലുവിളി അതിന്റെ കല്ല് നമ്മൾ തയ്ക്കുമ്പം അതിൻ്റകത്ത് സൂചി കുത്തുകയും സൂചി ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നതായിരുന്നു അല്ലാതെ വേറെ ബുദ്ധിമുട്ട് ഇല്ല